ആ സൂപ്പർ മാർക്കറ്റാണ് എന്താ വേണ്ടത് ആ അതെയതെ പറഞ്ഞോളൂ ഗ്രേപ്പ്സെന്ന് പറയുമ്പോൾ ഇന്നലത്തേക്കത് കെ ജിക്ക് അറുപതായിരുന്നു ഇന്നിപ്പോൾ കൂടിയിട്ടുണ്ട് എൺപതായിട്ടുണ്ട് പിന്നെ വേറെന്താണ് വേണ്ടത് ഓക്കേ ഓക്കെ അതെയോ ആ നിങ്ങൾക്കെത്ര ക്വാണ്ടിറ്റിയെത്രയാണ് വേണ്ടത് ഓറഞ്ച് എന്നുവെച്ചാൽ ഇപ്പോൾ തൊണ്ണൂറുണ്ട് കിലോക്ക് ഇന്നലെയെന്നുവെച്ചാൽ അത്രേം അതു ചെറിയ റേറ്റ് വ്യത്യാസമുണ്ടായി എൺപതും എഴുപതും അതിൻ്റെ ഉള്ളിലാണ് ഇന്നലെ റേറ്റുണ്ടായിരുന്നത് കൂടീട്ടുണ്ട്

ഓക്കെ നിങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നോണ്ട് നമുക്ക് കുറച്ചു റേറ്റ് അഡ്ജസ്റ്റ് ആക്കാം ആറുകിലോ ഗ്രേപ്പും ഓറഞ്ചും പിന്നെ വേറെ എന്താ വേണ്ടത് ആ ഓക്കെ ആപ്പിളിന് കുറച്ചു കൂടീട്ടുണ്ട് നൂറ്റി സംതിങ് പത്തായിട്ടുണ്ട് ഇന്നലെ തൊണ്ണൂറ് ആ ഇപ്പോൾ നൂറ്റിപ്പത്തായിട്ടുണ്ട് നല്ല നല്ല നല്ല സാധനമാണ് ചേഞ്ച്സ് ഒന്നുവില്ല ആ നല്ല നല്ല ക്വാളിറ്റിയാണ് ചേഞ്ച്സൊന്നുവില്ല നല്ല ടേസ്റ്റുണ്ടാവും ഓക്കെ ഓക്കെ

വാഴക്ക വേണോ ഇന്ന് റേറ്റ് കുറച്ചു കുറഞ്ഞിട്ടുണ്ട് എഴുപതായിട്ടുണ്ട് ആ എഴുപതാണ് ഇന്നലെ എൺപത് ഒരു എട്ട് കിലോ എടുക്കാമല്ലേ ഒരു നാൽപ്പത് എറൗണ്ട് ടോട്ടല് ഇപ്പമൊരു ടൂ തൗസൻഡോളം വരും ഓക്കെ എന്നാൽ നിങ്ങൾ അഡ്രെസ്സ് പറഞ്ഞോളു നമ്മൾ ഡെലിവറിയുണ്ട് ഡെലിവെറിയുണ്ട് ഡെലിവെറിയുണ്ട് അഡ്രെസ് പറഞ്ഞോളി ഓക്കെ ഓക്കെ എന്നാൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ അല്ലെങ്കിൽ ഡെലിവെറിയും ചെയ്യാം എ വേറൊന്നും വേണ്ടല്ലോ അതൊന്നും വേണ്ടല്ലോ ഓക്കെ ശരി